വാർത്തകൾ എന്നുള്ളത് നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ലഭിക്കാവുന്നതാണ് നമുക്കിപ്പോൾ ഓൺലൈനിൽ നിന്ന് ലഭിക്കാം അതല്ലെങ്കിൽ ടി വി പത്രം വെബ്സൈറ്റ് അങ്ങനെ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും കിട്ടുന്നതാണ് ഇപ്പം നമ്മൾ നോക്കുന്ന പത്രത്തിലാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നെങ്കിൽ പത്രമെന്നു പറയുമ്പോൾ അത്രയും മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ എഴുതുന്ന ഒരു സംഭവമാണ് അപ്പം നമുക്കത് നോക്കാൻ നിർത്തുകയാണെങ്കിൽ അതിനതിപ്പം ചിലപ്പോൾ അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവുകൾ ഉണ്ടാകാം ചിലപ്പോൾ പറയുന്ന വാർത്തകൾ നമ്മൾ ചിലപ്പോൾ തല വളച്ചൊടിച്ച് വേറൊരു രീതിയിൽ പറയുന്നവരുണ്ടാകാം അങ്ങനെ പറയുന്നവരുണ്ടെങ്കിലും നമ്മളതിന് അതു കൊണ്ട് നമ്മൾ പത്രത്തിനെ മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ ഏതു വാർത്തയാണാണെങ്കിലും നമ്മൾ മുഴുവനായിട്ട് വിശ്വസിക്കാൻ പാടില്ല കാരണം എല്ലാറ്റിലും അതിനൊരു മറ കൊടുക്കുന്നുണ്ട് നമ്മളൊരു സാധനം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റൊരു അതിൻ്റൊരു അർത്ഥമല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ അതു കൊണ്ട് നമ്മൾ എല്ലാറ്റിനും ഒരു മറയൊക്കെ ഉണ്ട് നമ്മൾ മൊത്തത്തിൽ നോക്കി കണ്ടും മാത്രമേ ഇതെല്ലാം ചെയ്യ ചെയ്യാൻ പാടുളളു പിന്നെ ഉള്ളത് നോക്കുകയാണെങ്കിൽ എന്താണ് ടി വി ടി വിയെന്നു പറയുമ്പോൾ ടി വിയിൽ നമ്മൾ കാണുന്നതു തന്നെ ന്യൂസ് ന്യൂസെന്നു പറയുന്നിടത്തു തന്നെ ഓരോ മാധ്യമ ചർച്ചകളാണ് ചർച്ചകളും അല്ലാതെ വാർത്തകളും ഉണ്ട് ഈ പത്രത്തിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് പത്രത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമുക്ക് ഈ ടി വികളിലും കാണാൻ പറ്റുന്നത് ടി വിയെന്നു പറയുമ്പോൾ അതിനെ ദിവസം ആൾക്കാർ വരുന്നു ഓരോരോ വിഷയം കൊടുക്കുന്നു അതിനെ പറ്റി ചർച്ച ചെയ്യുന്നു നമ്മളാ ചർച്ചകളെല്ലാം കാണുന്നു ചർച്ചകളിൽ പറ്റിയിട്ടുള്ള അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളത് കാണാണ്ടത് ശ്രവിക്കുന്നു പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ടി വി കാണുന്നതും മുഴുവനായിട്ടങ്ങ് വിശ്വസിക്കാൻ പാടില്ല നമ്മളത് മൊത്തത്തിലത് മൊത്തത്തിലൊന്ന് നോക്കി എല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിനെപ്പറ്റി വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കു തന്നെ നമുക്കത്ര നല്ലൊരു കാര്യമായിരിക്കില്ല അത് ഒട്ടും ഗുണമുള്ളൊരു ഒരു കാര്യമല്ലത് ഒരിക്കലും പിന്നെയുള്ളത് ഓൺലൈൻ വാർത്തകളാണ് ഓൺലൈൻ വാർത്തയെന്നു പറയുമ്പോൾ ഡെയിലി ഹണ്ട് പോലെയുള്ള ആപ്ലേഷ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് വാർത്തകൾ കിട്ടുന്നതാണ് ആ വാർത്തകൾ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്കാ വാർത്തകൾ എല്ലാ വിശ്വസനീയമല്ല കാരണം ഇപ്പോൾ ഇപ്പം നടക്കുന്നൊരു സംഭവം നമുക്കതിനകത്ത് കാണാൻ നേരത്ത് വേറൊരു രീതിയിലതിനെ കാണിച്ചിട്ട് പറയുന്നവരുണ്ട് അപ്പം നമ്മളതിനു മൊത്തത്തിൽ നോക്കി നമ്മൾ നമ്മളതിനെ വിലയിരുത്തി മാത്രം അതിന് അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ നമുക്കു തന്നെയത് വിനയായി തീരുന്നതാണ് അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വാർത്തകളെന്നു പറയുമ്പോൾ കുറച്ചും കൂടി സുതാര്യമാണെന്നു പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വാർത്തകൾ അപ്പപ്പം അറിയാൻ പറ്റും ഹോട്ട് ന്യൂസെന്നു പറയുമ്പം നമുക്കറിയാൻ പറ്റും ടി വിയിലും അങ്ങനെ തന്നെയാണ് എന്നു പറയുമ്പോൾ പെട്ടെന്നു നടക്കുന്നൊരു അപകടമോ അല്ലെ എന്തെങ്കിലൊരു പെട്ടെന്നൊരു സാ പെട്ടെന്നു നടന്നൊരു വാർത്തയോ അങ്ങനെന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി ഓൺലൈൻ വെബ്സൈറ്റ് പോലെ വെബ്സൈറ്റിൽ പിന്നെയും താമസിച്ചായിരിക്കും വരിക ഓൺലൈനെന്നു പറയുമ്പോൾ ആപ്ലിക്കേഷനുകൾ പോലെയുള്ള സാധനങ്ങളിൽ പെട്ടെന്ന് നമുക്ക് വാർത്തകൾ വരുന്നതാണ് ഇപ്പേതേലൊരു മുഖ്യ ആരുടെ മരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയൊരു അപകടമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലൊക്കെ ഒരു പെട്ടെന്നു നടക്കുന്ന ഓരോ വാർത്തകൾ നമുക്കറിയാൻ പറ്റുക ഇതിൻ്റെ സഹായത്തിലുള്ളതാണ് അതു കൊണ്ട് കുറച്ചു കൂടി നമ്മൾ വാർത്തകൾ നോക്കാൻ കുറച്ചു കൂടി നല്ലത് ടി വി ഓൺലൈൻ വെബ്സൈറ്റ് തുടങ്ങിയവയിലാണ് ഫസ്റ്റ് നമുക്ക് വാർത്തകൾ വരിക ഓൺലൈനിലാണ് ടി വിയുടെ കേസിൽ എന്നു പറയുന്നിടത്ത് അതിനകത്തുള്ള റിപ്പോർട്ടേഴ്സ് എല്ലാം അവിടെ മൈക്കും തൂക്കി ഓടിപ്പോയി അവിടെ ചെന്നാലേ നമുക്ക് ഇതിൻ്റെ വാർത്തകളെല്ലാം അറിയാൻ പറ്റുകയുള്ളൂ അതേ പോലെയല്ല ഓൺലൈൻ ഓൺലൈനെന്നു പറയുന്നതിനകത്ത് കിട്ടുന്നത് പെട്ടെന്നൊരു ആരുടെയെങ്കിലൊരു വിരൽത്തുമ്പിൽ നിന്നും അറിയുന്ന കാര്യങ്ങളാണ് നമ്മളവിടെ ന്യൂസായിട്ട് നമ്മളറിയുന്നത് അതു കൊണ്ട് നമ്മൾ വാർത്ത ലഭിക്കാൻ കൂടുതലും കുറച്ചു കൂടി നല്ലത് ഓൺലൈൻ മാധ്യമങ്ങളാണ് അതു പോലെ ഡെയിലി ഹണ്ടെന്നു പറഞ്ഞ അപ്ലിക്കേഷനാണെങ്കിൽ നമുക്കിപ്പോൾ നമുക്ക് അതിനകത്ത് കയറി ഇന്ന സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ പരിധി നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓൾറെഡി അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോലും ഒരെണ്ണം വരുന്നതാണ് അപ്പം നമ്മൾക്ക് അതിനകത്തു തന്നെ അതിൽ കൂടി തന്നെ നമുക്ക് ന്യൂസുകൾ അറിയാൻ പറ്റുന്നതാണ് വാർത്തകളെല്ലാം അപ്പം നമുക്ക് എന്താണ് പോയി നോക്കി പ്രധാന വാർത്തകൾ എന്താണ് എന്ന് ചോദിക്കാണ്ടു തന്നെ ഇങ്ങോട്ടേക്ക് വാർത്തകൾ അറിയാൻ പറ്റുകയെന്നു പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അതു കൊണ്ട് മിക്കവരും ഓൺലൈൻ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെയുള്ളതെന്നു പറയുമ്പോൾ വെബ്സൈറ്റ് വെബ്സൈറ്റെന്നു പറഞ്ഞാൽ അത് ഓരോ ആൾക്കാർ ഉണ്ടാക്കി വിടുന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു വെബ്സൈറ്റിനകത്ത് വരുന്ന വാർത്തകൾ എന്നു പറയുന്നിടത്ത് ഈ ഓൺലൈനിൽ വരുന്ന വാർത്തകൾ കുറച്ചും കൂടി താമസിച്ച് അത് വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്ത് അ പിന്നെയാണത് പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വെബ്സൈറ്റെന്നു പറയുന്നത് കുറച്ചു കൂടി താമസം ഉളവാക്കുന്നതാണ് അപ്പോൾ കുറച്ചു കൂടി നല്ലത് ഓൺലൈൻ ടി വി പോലെയുള്ള മുതലായിട്ടുള്ള സാധനങ്ങളാണ് പത്രമെന്നു പറയുമ്പോൾ ഇപ്പം ന ഇന്ന് നടക്കുന്നൊരു വാർത്ത അല്ലെങ്കിൽ പെട്ടെന്നു നടക്കുന്നൊരു വാർത്ത നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല അത് അറിയാവുന്നത് അടുത്ത വാർ അടുത്ത പേപ്പർ എന്താവെച്ചാൽ അടുത്ത പാത് അടുത്ത പിറ്റേ ദിവസം പിറ്റേ ദിവസം നമുക്ക് രാവിലെ പത്രം ലഭിക്കാൻ നേരത്ത് നമുക്ക് അതിനകത്തെ വാർത്തകൾ അറിയാൻ പറ്റുകയുള്ളൂ അതു കൊണ്ട് പത്രത്തിലുള്ള വാർത്തകൾ അത്ര പെട്ടെന്നറിയാൻ പറ്റാത്തതിനാൽ കുറച്ചൂ കൂടി നല്ലത് ഓൺലൈൻ വെബ്സൈറ്റ് മുതലായവയാണ് പക്ഷെ നമുക്ക് കുറച്ചു കൂടി കൈ കാര്യം ചെയ്യാൻ എളുപ്പമുള്ളതെന്നു പറയുന്നത് പത്രമാണ് എന്താണെന്നു പറഞ്ഞാൽ നമുക്കത് നമുക്കത് പത്രമല്ലേ അപ്പം നമുക്കത് പേപ്പറായിട്ട് നമുക്ക് ജസ്റ്റിങ്ങനെ വായിച്ച് വായിച്ച് പക്ഷെ മൊബൈലെന്നു പറയുമ്പോൾ എന്താണ് നമ്മളുടെ കണ്ണിനും അതിനും എല്ലാം അത്യാവശ്യം പ്രശ്നം ഉളവാക്കുന്നതാണ് എന്നാലും നമുക്ക് പെട്ടെന്ന് അറിയുക എന്നതാണ് നമ്മളുടെ മെയിൻ ലക്ഷ്യമെങ്കിൽ നമുക്ക് അതിനകത്ത് ഓൺലൈൻ വെബ്സൈറ്റ് മുതലായിട്ടുള്ളവ ഏതു വേണമെങ്കിലും നമുക്ക് നോക്കാവുന്നതാണ് അതായിരിക്കണം കുറച്ചു കൂടി നല്ലത് പിന്നേ ടീ വിയെന്നു പറയുന്നതികത്ത് നമുക്ക് അതിനകത്ത് കുറച്ച് കുറ്റങ്ങളൊക്കെ വരാൻ ചാൻസുണ്ട് കാരണം ഓൾറെഡി പറഞ്ഞു അതിനകത്ത് കുറേ നേരം പകുതി ചർച്ചയെന്നൊക്കെ പറഞ്ഞു പോകും പിന്നെ ടീ വിയിൽ നടക്കുന്നത് പലതും നമ്മൾ ഓൾറെഡി കാണുന്നതാണ് അതു കൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടും കട്ട് നോക്കിയും മാത്രം ടി വി എന്നുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക അതിനേക്കാൾ നല്ലത് ഓൺലൈനിൽ മുതലായുള്ള സാധനങ്ങളാണ് പക്ഷെ അതിലും നമുക്ക് സുതാര്യക്കുറവുണ്ട് എന്നാലും നമുക്ക് പെട്ടെന്ന് വാർത്ത അറിയുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൻ്റെ പുറമേ നമുക്കത് വേണേ ഉപയോഗിക്കുന്നതാണ്